കോഴിയേ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കോഴിയെ കൂടും പരിസരവും എല്ലാം നല്ല അണുനാശിനീ ഉപയോഗിച്ച് കൂടുകളെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്ത് അതിനു ശേഷം കോഴി അഥവാ ഒരു മാസം മാസം ഓരോ മാസം കൂടുമ്പോൾ അതുങ്ങൾക്ക് അതിനുള്ള തുള്ളിമരുന്നുകൾ കൊടുക്കുകയും എല്ലാം ചെയ്യണം അല്ലെ ചെയ്യും പിന്നെ നമുക്ക് ചൂ മഞ്ഞൾ വെള്ളം മഞ്ഞളും തുളസീ ഇലയൊക്കെ ഇട്ട വെള്ളം കുരുമുളകൊക്കെ ഇട്ട വെള്ളം നമ്മളിടക്കിടക്ക് കോഴിക്കു കൊടുക്കുന്നത് നല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാണ് കോഴീ രോഗം പടരാതിരിക്കാൻ ഇടക്കിടക്ക് കൂട് കുമ്മാ കൂടുകളല്ലാതെ കിടക്കുന്നു കൂടുകളൊക്കെ കുമ്മായമൊക്കെ ഇട്ടും ഒക്കെ നമ്മൾ വൃത്തിയാക്കണം അതിൻ്റെ കാഷ്ടമൊക്കെ അടിച്ച് രണ്ടു വട്ടമെങ്കിലും കൂ കൂട് ക്ലീൻ ചെയ്യുകയും നല്ല രീതിയിലതിനു വായു കടക്കത്തക്ക രീതിയിൽ കൂട് പണിയുകയും ചെയ്യണം ഈ വായു അടഞ്ഞു കിടന്നാൽ അതായത് കാറ്റ് കയറി ഇറങ്ങി പോയില്ലെങ്കിൽ അതു കൂടിനകത്ത് ചൂട് നിന്നിട്ട് കോഴികൾക്ക് പെട്ടെന്ന് രോഗം പിടി പെടാൻ സാദ്ധ്യതയുണ്ട് നല്ലതു പോലെ വെള്ളം ശുദ്ധമായ വെള്ളം അതുങ്ങൾക്ക് ധാരാളം കുടിക്കാൻ കൊടുക്കണം അതുപോലെതന്നെ ഫങ്കസ് വരുന്ന തീറ്റ അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും കോഴികൾക്കു കൊടുക്കരുത് ഫങ്കസ് അങ്ങനെയുള്ളാതൊക്കെ കൂട്ട് കൂട് നമ്മൾ വേസ്റ്റ് ഒത്തിരി ആ കൂട് വൃത്തിയായിട്ടു സൂക്ഷിക്കുക എന്നുള്ളതാണ് രോഗം പടരാതിരിക്കുന്നതിന് നമുക്ക് ഇനി അഥവാ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞ രോഗം വന്നു കഴിഞ്ഞാലതിനു പെട്ടെന്ന് തന്നെ നമ്മൾ തുള്ളി മരുന്ന് മൃഗാ മൃഗാശുപത്രിയിൽ ചെന്ന് തുള്ളിമരുന്നു മേടിച്ച് അതിന് തുള്ളി കൊടുക്കണം നല്ല വെള്ളം കൊടുക്കണം തണുപ്പ് ഒന്നും അടിക്കാതെ അധികം മഴക്കാലമോ ആയാൽ തണുപ്പടിക്കാൻ സാദ്ധ്യമുണ്ട് എങ്കിൽ തന്നെ അധികം തണുപ്പൊന്നും അടിക്കാത്ത രീതിയിൽ കൂട് ശകലം പൊക്കിയൊക്കെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരികയാണെങ്കിൽ കോഴിയുടെ രോഗങ്ങൾ നിന്നൊക്കെ നമുക്ക് രോഗം വരാതിരിക്കാൻ നമുക്ക് സാധിക്കും പിന്നേ കോഴികളുടെ കോഴിക്ക് രോഗം വന്നു കഴിഞ്ഞ നമ്മൾ മടീ മൃഗാശുപത്രി ചെന്നു ഡോക്ടറുടെ അടുത്തു ചെന്നിട്ട് മരുന്ന് മരുന്ന് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് തീറ്റയാണ് പൂപ്പലൊന്നു വരാത്ത തീറ്റ അങ്ങനെയും പൂപ്പലുള്ള തീറ്റകൾ അതുങ്ങൾക്ക് കൊടുക്കരുത് അതേപോലെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂ ഒരു കോഴിക്കസുഖം വന്നു കഴിഞ്ഞാൽ മതി ആ കൂട്ടിലുള്ള എല്ലാ കിളികളും രോഗം പിടിപെടും അപ്പോൾ രോഗം ഒരു കോഴിക്ക് രോഗം വന്നൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിയെ എത്രയും പെട്ടെന്നു വേറെ മാറ്റി കൂട് ക്ലീനാക്കുകയും എല്ലാ കോഴികൾക്കും അതിനുള്ള മരുന്നു കൊടുക്കുകയും കീടനാശിനീ തളിക്ക് അതു കൂട് അണുനാശിനി അണുനാശിനി വെച്ചു കൂട് ക്ലീൻ ചെയ്യുകയും ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഒത്തിരി ഒക്കെ കോഴികളുള്ള കൂടുകളാണെങ്കിൽ ഒത്തിരി നമ്മളൊരു ആജ് പത്തും ഇരുന്നൂറും മുന്നൂറും ഒക്കെ കോഴികളാണ് ഉള്ളെങ്കിൽ അതുങ്ങൾക്ക് വായു നല്ല രീതിയിൽ കയറി ഇറങ്ങി പോകത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത് ഇല്ലെങ്കിലൊരു കോഴിക്കു വന്നു കഴിഞ്ഞ അത്രയും കോഴികൾ ഇപ്പം രോഗം വന്ന് അസുഖം ബാധിച്ച് അതിന് മരണപ്പെടാൻ സാദ്ധ്യത ഉള്ളതു കൊണ്ട് നമ്മൾ കൂടുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്